ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഷൂ ഓഡർ ചെയ്തത് ഷൂവിൻ്റെ ഡെലിവറി സ്റ്റാറ്റസ് നോക്കാനായിട്ട് ഫ്ലിപ്കാർട്ടിൽ കയറി എൻ്റെ ഓഡേഴ്സിൽ പോയിട്ട് ഷൂ ഓർഡർ ചെയ്തത് എടുത്തിട്ട് അതിൽ ട്രാക്കിങ് ഓർഡറ് കൊടുത്ത് ട്രാക്കിങ്ങ് ഓടറിൽ പോയിട്ട് അത് എവിടംവരെ എത്തിയെന്ന് ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്താണോ അതോ ദൂരെയുള്ള സ്ഥലത്താണോ എന്നുള്ളത് ട്രാക്ക് ചെയ്തിട്ട് അതിൻ്റെ എന്നുവരും എന്നുള്ള ഡെലിവറി എന്നു വരും എന്നുള്ള സമയം നോക്കി നോക്കി എന്നത്തേക്കാണ് എന്നുള്ളത് ഉറപ്പുവരുത്തും